ഞാനി സ്വിവിക്കി ആപ്പിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡറ് ചെയ്ത ഫുഡ് ഐറ്റംസ് എന്നുപറയുന്നത് ഒരു പിസ ഞാൻ ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബർഗറ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രെയ്സ് പെപ്സി ഇത്രേം കാര്യങ്ങളാണ് ഞാൻ ഓർഡറ് ചെയ്തത് അപ്പം അത് ഉച്ചൽത്ത ലഞ്ചിനാണ് ഞാൻ ഓർഡറ് ചെയ്തത് ഒരു ട്വൽവ് തേർട്ടി ആയപ്പം ഞാനത് ഓർഡറ് ചെയ്തായിരുന്നു അപ്പം ഇത്ര സമയത്തിനുള്ളിൽ അത് വരോന്ന് നിങ്ങളൊന്ന് പറയാണെങ്കിൽ നല്ലതായിരുന്നു എനിക്കൊരു വൺ ഒക്കെ ആവുമ്പഴ്ത്തേക്കും എനിക്കത് വേണം ലഞ്ചിനാണ് ഞാൻ ഓർഡറ് ചെയ്തത് അപ്പം അത് എത്ര പെട്ടെന്ന് വരോന്ന് നിങ്ങളൊന്ന് അറിയിക്കാണെങ്കിൽ നല്ലതായിരുന്നു നിങ്ങളുടെ ഫുഡ് അത് വളരെ ഹൈജീനിക്കായതുകൊണ്ടും കറക്റ്റ് സമയത്ത് ഡെലിവറി ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിന്ന് ഓർഡറ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് എത്രെയും പെട്ടെന്ന് തന്നെ അത് ഏത് സമയത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന് എനിക്ക് പറഞ്ഞുതന്നിരുന്നെങ്കിൽ നന്നായിരുന്നു